പഴയ തലമുറക്കാർ കൂടുതൽ അന്ധ മത വിശ്വാസങ്ങളെ എന്താ പറയാ അന്ധമായിട്ട് വിശ്വസിച്ചത് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിരിക്കാം മാത്രമല്ല മറ്റുള്ളവർ പറഞ്ഞ് കേട്ട അറിവുകൾ മാത്രമേ ഉണ്ടായി അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ പറയുമ്പോൾ എന്താണോ അത് അവർ മുന്നി വിശ്വസിച്ചിട്ട് ആ ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം പിന്തുടർന്നു പോയി എന്നാൽ ഇന്നത്തെ ഇന്നത്തെ ചെറുപ്പകാരെന്ന് പറയുന്നത് കൂടുതൽ എന്താ പറയാ ആ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തമായിട്ട് അവർക്കൊരു എന്താ പറയാ തീരുമാനം അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാട് ആ കൂടുതൽ അറിവ് എല്ലാത്തിനേം പറ്റി എന്താ പറയാ ഇത് എന്താണ് അത് എങ്ങനെയാണ് അതിനെ ഈ ഈ വെറുതെ ഈ എന്താ പറയാ അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടന്നിട്ടൊരു പ്രയോജനവില്ല അങ്ങനെക്കെ അറിവില്ലാ ആൾക്കാരാണ് ഇപ്പോഴത്തെ തലമുറേൽ ചെറുപ്പക്കാർ പഴയ തലമുറേലെ ആൾക്കാരാണെങ്കിൽ എന്താ പറയാ ഈ മതത്തിൽ ഈ ബലി കൊടുക്കൽ അങ്ങനത്തെ എന്താ പറയാ കുട്ടികളെ ബലി കൊടുക്കൽ മൃഗത്തെ ബലി കൊടുക്കൽ അങ്ങനത്തെ ഓരോന്നിനെ വിശ്വസിച്ച് പോയ ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനത്തെ ഒരു കാര്യത്തിലും യാതൊരു വിശ്വാസവും ഇല്ല അവരിക്കറിയാം അങ്ങനെ ഒന്നും അല്ല അതെല്ലാം ഒരു അന്ധവിശ്വാസന്നന്നെ പറയാം അത് ആ ഒരു കാര്യത്തിൽ ചെറുപ്പക്കാരും പഴയ ആൾക്കാരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് പഴയ തലമുറക്കാറിൽ നിന്ന് ചെറുപ്പക്കാരിലെ കൂടുതൽ മാറാൻ കാരണങ്ങൾ പലതും ഉണ്ടാവാം ഒന്ന് ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നീട്ടുള്ളത് വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം കൂടുതൽ ലഭിച്ചു പിന്ന ഇന്നത്തെ കാലത്തെ ഡിഗ്രി മെയിനാ എന്താ പറയാ ബേസിക്കായിട്ട് എല്ലാവർക്കും നിർബന്ധം ആക്കിയോണ്ടന്നെ അവർക്ക് കൂടുതലും എന്താണ് ഈ ലോകം എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് മെയിനായിട്ട് സോഷ്യൽ മീഡിയകൾ അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരെ ജീവിതത്തിൽ അപ്പോൾ ആ പണ്ടത്തെ ആൾക്കാർക്ക് ഈ ഫോണ് യൂസ് ചെയ്യണ്ട സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അറിവുകൾ കുറയും ഈ പറഞ്ഞ് കേട്ട അറിവുകൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഈ അറിവുകളെല്ലാം കൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മതവിശ്വാസങ്ങൾ ഇൺ ഉണ്ട് ഇല്ലാന്നല്ല പറയുന്നത് അന്ധവിശ്വാസങ്ങൾ ഇല്ലാന്നാണ് എൻ്റെ ഒരഭിപ്രായം